ആ ഞാന് കുറച്ച് മുന്നേ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയൊരു ഫ്രണ്ടാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ ഇല്ല അപ്പോൾ അവർക്ക് എത്തിച്ച് കൊടുക്കാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ആ ഞാൻ കറക്ട് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ അ ബീച്ചില്ലേ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടുന്ന് റൈറ്റ് പോയിട്ട് ഫസ്റ്റ് കാണുന്ന അപാർട്ട്മെൻറ് ആ അതേയതേയതേ അതുതന്നെ അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അവർക്ക് അവരോട് അതായത് എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ വിളിച്ചു പറയാം അപ്പോൾ അവർക്കൊന്ന് നിങ്ങള് എത്തിച്ചുകൊടുത്താൽ മതി ആ ഒക്കെ ഒക്കെ ആ ഫസ്റ്റ് കാണുന്ന അപ്പാർട്ട്മെൻറിൽ രണ്ടാമത്തെ രണ്ടാമത്തെ റൂമ് ആ അതെ അതെ ആ അതെ അതെ ആ അത് തന്നെ അവിടെ തന്നെ അപ്പോൾ എത്തി കഴിഞ്ഞിട്ട് എന്നെ എന്താ പറയുക ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെയൊന്ന് വിളിച്ചാൽ മതി ഞാൻ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇട്ട് തരാം അപ്പോൾ അവരുടെ അടുത്ത് ക്യാഷ് ഇല്ല അപ്പം ഞാൻ ഗൂഗിൾ പേയിലെ ക്യാഷ് ഇട്ട് തരികയുള്ളൂ ഓക്കേ ഓക്കേ നമ്പർ എനിക്ക് വാട്സാപ്പ് ചെയ്ത് തന്നാൽ മതി ഓക്കേ എന്നാല്